ഹലോ ഹലോ ഹലോ ചേട്ടാ മറ്റെ ഏ അതെ ഫോട്ടോഗ്രാഫർ എബിനല്ലേ ആ അപ്പോൾ ഞാൻ രണ്ടു ദിവസം മുന്നെ ഒരു രണ്ടു മാസം മുന്നെ ഒരു കല്ല്യാണം നടത്തിയപ്പം ഒരു എൻ്റെ ഒരു ഫോട്ടോ എടുത്തായിരുന്നു അപ്പം അതപ്പം ആ അത് കിട്ടിയില്ലായിരുന്നു ആ അയ്യോ ചേട്ടാ കുറച്ച് തിരക്ക് ഉണ്ടായിരുന്നു കുറച്ച് അല്ല കുറച്ച് തിരക്ക് ആ എനിക്ക് ഞാൻ രണ്ട് ദിവസം കഴിയുമ്പം ഞാൻ പുറത്തേക്ക് പോകും അപ്പം എനിക്ക് വന്ന് കൊണ്ട് പോകാനായിരുന്നു അയ്യോ ചേട്ടാ അയ്യോ ചേട്ടാ ഞങ്ങൾക്ക് കുറച്ച് തിരക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു പെട്ടെന്ന് വേണമായിരുന്നു ആ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകും അപ്പോൾ പെട്ടെന്ന് ഒരു ഇപ്പം നിങ്ങളോട് ഞാൻ കുറച്ച് നേരത്തെ ചെയ്ത് തരാൻ പറഞ്ഞതല്ലേ അപ്പം നിങ്ങളല്ലേ കുറച്ച് താമസിച്ചത് ഇതായി അതുകൊണ്ടല്ലേ ചേട്ടാ നാളെ നാളെ കഴിഞ്ഞത്തേക്ക് മതി പിറ്റേ ദിവസമാണ് പോകുന്നത് അപ്പോൾ തലേദിവസം കൊണ്ട് തന്നാൽ മതി ഞങ്ങൾ വെളുപ്പിനെ പോകും ആ എല്ലാം ഓക്കെ ആണ് ആ അ അതൊക്കെ ഓക്കെയാണ് അപ്പം ബാക്കി ഫണ്ട് ചേട്ടൻ ന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് തന്നാൽ പോരെ എന്നാൽ ആൽബം കൊണ്ട് അല്ലാണ്ട് അല്ലാണ്ട് തരത്തില്ല കേട്ടോ ആ അല്ല അപ്പം കൊണ്ട് തരണം കേട്ടോ മറക്കരുത് ഓട്ടിക്കരുത് കേട്ടോ നമ്മുടെ സിറ്റുവേഷൻ ഇങ്ങനായി പോയി നമുക്ക് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിച്ചെനെ പക്ഷേ ഇപ്പോൾ നമുക്ക് പോകേണ്ട കുറച്ച് അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇപ്പം അത് അത് മനസിലായി അത് മനസിലായി ആ ഓക്കെ ആ ആ ആ ചേട്ടൻ്റെ സിറ്റുവേഷൻ മനസിലാകുന്നുണ്ട് ശരിയാണ് പക്ഷേ നമുക്ക് രണ്ട് ദിവസത്തിന് അകം കഴിഞ്ഞ് പോകേണ്ടതാണ് ആ ഒരു മൈൻഡ് ആയത് കൊണ്ടാണ് അപ്പം എങ്ങനെയാണ് റെഡിയാക്കി തരുമോ അതോ ആ ആ സെറ്റാക്കി ആ അപ്പോൾ ഫണ്ട് ഫണ്ട് അപ്പോൾ കൊണ്ട് തരാം ആ ഓക്കെ ഓക്കെ വന്ന് ക്ക ആ ഉണ്ട്